ഹലോ നിങ്ങൾ എന്ത് രീതിയിലാണ് ഈ വണ്ടി ഓടിക്കുന്നത് ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളെ സത്യം പറഞ്ഞാൽ വിളിച്ചിരിക്കുന്നത് വച്ചാൽ എൻ്റെ ഞങ്ങളെ യാത്ര വളരെ സുരക്ഷിതമാകാൻ വേണ്ടിയാണ് നിങ്ങളെ വണ്ടി വിളിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ സത്യം പറഞ്ഞാൽ വളരെ അലക്ഷ്യമായിട്ടും യാതൊരു വിധമാം ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ഈ വണ്ടി ഓടിച്ചു കൊണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് വേറെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓടിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങളെ കൂടെയാണ് സേഫൊക്കെ ഓർത്തു കൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ ഈ കാറ് വിളിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇത് ഇത് ഇപ്പോൾ ഇപ്പം ഇതെ ഈ പോക്ക് കണ്ടു എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി അല്ലേ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ ഓടിക്കൊണ്ട് പോവുക ഞങ്ങളെ ഒരു സുരക്ഷിതത്വമോ അല്ലെങ്കിൽ ഞങ്ങളെ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ആവശ്യം ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല നിങ്ങൾ മാത്രമല്ല നിങ്ങളാണ് അലക്ഷ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അങ്ങനെ അങ്ങനത്തെ ന്യായം പറയല്ല ന്യായമല്ല ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോട് കൂടെ ഞാൻ ഞങ്ങളുടെ പ്രായമുള്ള ഞങ്ങളെ ആ അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട് അവർക്കൊക്കെ ഒരു സേഫായിട്ട് അവരെ സുരക്ഷിതമായിട്ട് കൊണ്ട് പോവാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ ഇത്രയും പൈസ മുടക്കി നിങ്ങളെ ഈ കാറ് പിടിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിനാണെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് പോവാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഇത് ഇത്രയും പാടു പെട്ടത് മാത്രമല്ല എന്ത് എന്തൊരു ഈ ഒരു ഒരു സ്പീഡ് ഇത് വളരെ സ്പീഡാണ് ഭയങ്കരം സ്പീഡും ഉണ്ട് മാത്രമല്ല ഈ കുഴിയൊക്കെ കാണുമ്പോൾ ഒന്ന് ചവിട്ടി ഒന്ന് സ്ലോ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലേ വണ്ടി ഓടിക്കേണ്ടത് നിങ്ങൾ എന്താണ് ആദ്യം ആയിട്ടാണോ ഈ പകൽ ഓടിക്കുന്നത് സോറി സോറി ഒന്നും പറഞ്ഞിട്ട് കാര്യം സോറി സോറി അല്ല അങ്ങനെ സോറി പറയാനല്ല നിങ്ങൾ ഈ പറഞ്ഞത് പോലെ ഞങ്ങളെ സേഫായിട്ട് അല്ലേ സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുക എത്തിച്ചേരുക എന്നുള്ളതാണ് നിങ്ങളെ ദൗത്യം നിങ്ങൾ ആ പിന്നെ മുമ്പേ ഞാൻ പൈസയുടെ കാര്യം ചോദിച്ചു എത്രയാണ് പേയ്മെൻ്റ് എത്രായാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അത് ഇപ്പോൾ ഞങ്ങളെ കയ്യിൽ ഇപ്പോൾ എൻ്റെതിൽ എൻ്റെല് ക്യാഷില്ല പിന്നെ പിന്നെ അത് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇത് പിന്നെ ആധുനികമായ യാതൊരു സംവിധാനങ്ങളും ഇല്ല ആ അപ്പോൾ അതെന്തൊരു ആ ഗൂഗിൾ പേ ഇല്ല ആ അത് അങ്ങനെയൊന്നുമല്ല ഇപ്പോഴത്തെ ഈ ആധുനികമാകുന്ന കാലത്ത് നമ്മളൊരു കാര്യങ്ങളുമായി മുമ്പോട്ട് പോവുമ്പോൾ എന്തൊക്കെയാണ് ഒരു പിന്നെ യാത്രക്കാരൻ അല്ലെങ്കിൽ യാത്രക്കാരൻ്റെ കാര്യം പിന്നെ അവൻ്റെ ഈ ഈ എല്ലാ വിധമാകുന്ന സുരക്ഷിതത്വവും അവരുടേതായ ആനന്ദവും സന്തോഷവും ആയിരിക്കണം ഒരു ഡ്രൈവറിൻ്റെ അല്ലെങ്കിൽ വാഹന ഉടമസ്ഥൻ്റെ ഉത്തരവാദിത്തം ആ ശരി ശരി എന്നാൽ ഇനി മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ഒരു യാത്രക്കാരന് നിങ്ങൾ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല ആ ശരി ശരി ഓക്കെ